മലയാളഭാഷയെക്കുറിച്ച് പറയുമ്പോൾ മലയാളഭാഷ ഇന്ന് കുറച്ച് ഉൾവലിഞ്ഞു പോവുകയാണ് കാരണം എന്തെന്നാൽ ഇന്നെല്ലാവരും ഇംഗ്ലീഷുകളിലേക്കാണ് പോകുന്നത് കാരണം കേരളത്തിന് പുറത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തോ പോകുമ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾക്കാണ് പ്രാധാന്യം മലയാളഭാഷയ്ക്ക് കേരളത്തിൽ മാത്രമാണ് പ്രാധാന്യം എന്നുള്ളത് തന്നെ മറ്റു ഭാഷകൾ പഠിക്കാനാണ് കൂടുതൽ താൽപര്യപ്പെടുന്നത് അതുതന്നെ അത് ഒരു ഇതാണ് അപ്പോൾ അതിൽ നിന്നും മാറ്റം വരുത്താനായി ഇന്ന് മലയാളഭാഷയെ തിരിച്ച് കൊണ്ടുവരാനായി ഇന്ന് പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഒന്നാമതു തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ വിദ്യാലയങ്ങളിൽ മലയാളഭാഷയ്ക്ക് ഒരു പ്രാധാന്യം എടുത്തു പറയേണ്ട പ്രാധാന്യം തന്നെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് മലയാള ഭാഷയുടെ പ്രാധാന്യം എന്താണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെതന്നെ പല ബോധവൽക്കരണ ക്ലാസ്സുകളും നടക്കുന്നുണ്ട് അതുപോലെതന്നെ പല സെമിനാറുകൾ മലയാളഭാഷയെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി പല പ്രവൃത്തികളും നടക്കുന്നുണ്ട് പിന്നെ എന്നുപറയുന്നു വച്ചാൽ ഇന്ന് ഓൺലൈനിലൂടെയും മലയാളഭാഷയെ തിരിച്ചു കൊണ്ടുവരാൻ ഓരോ മാർഗ്ഗങ്ങളും നടത്തുന്നുണ്ട് ഓരോ ഏപ്പുകൾ അതുപോലെതന്നെ പല യൂട്യൂബ് അതുപോലെതന്നെ പല സോഷ്യൽ മീഡിയയിൽ കൂടിയും മലയാളഭാഷയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പലതും നടക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വച്ചാൽ മലയാളഭാഷ കുട്ടികളിൽ എത്തിക്കാൻ അവരുടെ വീട്ടിൽ നിന്ന് വളരുന്ന സാഹചര്യത്തിലാണ് നമുക്ക് മലയാളഭാഷയെ കൂടുതൽ അവർക്ക് നല്കാൻ അവർക്ക് കൊടുക്കാനൊന്നും അത് കാരണം എന്ന്ഉ വച്ചാൽ അവർ പഠിക്കാനേറ്റവും കൂടുതൽ സാധ്യതയെന്ന് വച്ചാൽ മലയാളഭാഷയെ നമ്മുടെ വീടുകളിൽ നിന്നാണ് കുടുംബങ്ങളിൽ നിന്നാണ് അങ്ങനെയാണ് നമ്മൾ വളരുന്ന സാഹചര്യത്തിൽ മലയാളഭാഷ കൂടുതൽ പഠിക്കാൻ അതും നമ്മുടെ പ്രവർത്തികളിൽ മലയാളഭാഷയെ തിരിച്ചു കൊണ്ടുവരാൻ ആ ആളുകൾക്ക് ഭാഗമാകാൻ കഴിയും